നമ്മൾ ചെടികളെ നോക്കുകയാണെന്ന് പറയുമ്പോൾ അതിന് ഓരോ തരത്തിലും നമ്മൾ പല പല കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ചെടികൾ ഇന്ന കാലഘട്ടത്തിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു പ്രത്യേക സീസണിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് കാലാവസ്ഥയിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് വളരുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ പത്തുമണിപ്പൂവ് ആൾ ആ ഒരു ചെടി നോക്കുകയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ രാവിലെ പത്ത് മണിക്ക് അത് പൂവാവുകയുള്ളു മറ്റേ ചെടികളെ പോലെ കാലത്തെ നേരത്തെയൊന്നും പൂവിരിയില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോന്ന് ഇപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ സമയപാലനം അല്ലെങ്കിൽ ഏത് സമയത്താണ് അതിനെ കുറച്ചു കൂടുതൽ വളരാൻ പറ്റിയ മറ്റ് കാലഘട്ടങ്ങൾ നമുക്ക് ഇപ്പോൾ മഴ കൂടുതലുള്ള സീസനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടികൾക്ക് ഒരു കവറിങ് പോലെ സെറ്റപ്പാക്കി കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ ഒരു മേൽക്കൂരപോലെ എന്തെങ്കിലും പണിതിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക അപ്പോൾ ആവശ്യത്തിന് വെള്ളം കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്നാൽ ഒരുപാട് വെള്ളം അതിന് മേത്തേക്ക് വീഴാണ്ടിരിക്കാൻ ചെടി കേടുവന്ന് പോവാണ്ടിരിക്കാൻ അളിഞ്ഞു പോവാണ്ടിരിക്കാൻ അങ്ങനത്തെ സംവിധാനങ്ങൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചാക്കിലാണ് വെച്ചിട്ടുണ്ടെങ്കിലെന്ന് പറയുമ്പോൾ അതിനൊരു ചെറിയ ഒരു ഓട്ട പോലെ ഇട്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളം അതിൾ നിലനിൽക്കുകയും ചെയ്യും എന്നുവെച്ച് ഒരുപാട് വെള്ളം നിന്ന് അത് ചീയില്ല അങ്ങനെയുള്ള ചില ചെറിയ പൊടിക്കൈയ്യാണ് നമ്മൾ മെയിനായിട്ട് എടുക്കണ്ടത്